നെഗറ്റീവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് വൈറ്റാണ് അപ്പോൾ പിന്നെ ബെഡ് വൈറ്റാണ് കട്ടക്കേലിട്ടിരിക്കുന്നത് പിന്നെ കുറച്ചൊരു ഇളക്കമുണ്ട് കട്ടിലിന് പിന്നെ വൈറ്റ് ആയതുകൊണ്ട് പെട്ടന്ന് ചെളി പിടിക്കൊല്ലോ ആ ഒരു നെഗറ്റീവ് മാത്രമെ ഉള്ളു വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും ഇല്ല പ്രൊഡക്റ്റിനെ കുറിച്ച്